ഒരു കോഴിഫാമിൽ നമ്മൾ ചെന്നു കണ്ടുകഴിഞ്ഞാലുടന് നമുക്ക് അറിയാൻ പറ്റും അത് ശരിയായി പരിപാലിക്കുന്നുണ്ടോ ഇല്ലയോന്ന് കാരണം അതിൻ്റെ കുടി നോക്കുക കുടി മീൻസ് വെള്ളം വെള്ളമോ അതിൻ്റെ തീറ്റയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലപോലെ കൊണ്ടു പോവുന്ന ഒരു ഫാമാണ് അത് ഏത് സമയവും അതുമാത്രമല്ല വേസ്റ്റ് മാനേമെൻറ് വേസ്റ്റ് മാനുമെൻറ് തീർച്ചയായിട്ടും നമുക്ക് നോക്കുമ്പോള് അറിയാൻ പറ്റും കഴിഞ്ഞ തലേ ദിവസത്തെ വേസ്റ്റുകൾ ഉണ്ടോ ഇത്രയും നാൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ആ കോഴിഫാമിനെ പറ്റിയുള്ള എല്ലാ സൂചനകളും പിന്നെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എല്ലാം ഏറ്റവും ആവശ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള മരുന്നുകൾ കൊടു കൊടുത്തിരിക്കണം അതുമാത്രമല്ല ഒരു ഡോക്ടർ ഒരു മാസത്തില് കൺസൾട്ട് ചെയ്ത് ആ ഫാമും നോക്കുന്നത് നല്ലതായിരിക്കും ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ടു പോവാനും സാധിക്കും നമ്മൾ ഇല്ലെങ്കില് തന്നെ നമ്മള് ഒരാളെ ഏല്പ്പിച്ചിട്ടാണ് പോകുന്നതെങ്കില് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അറിയാൻ അറിയാനും സാധിക്കും ഫാം എങ്ങനെയാണ് കൊണ്ടു പോവുന്നെന്ന്